ആഴമേറിയ അർത്ഥമോ പ്രാധാന്യമുള്ളതായിട്ട് പിന്നീടെനിക്ക് തോന്നിയ വരകളെന്ന് പറയാണെങ്കിൽ കുട്ടിക്കാലത്ത് വരച്ച ചില ചിത്രങ്ങള് മാത്രമേ എനിയ്ക്കങ്ങനെ തോന്നീട്ടുള്ളൂ അതിൽ പറയുവാണെ എടുത്ത് പറയുവാണെങ്കിൽ ഞാനൊരു ചി ചിത്ര രചനക്ക് ഒരു മരം വരച്ചിരുന്നു ഉണങ്ങി കരിഞ്ഞ ഒരു മരം ആ സമയത്ത് അതൊരു തമാശ ഒരു മത്സരത്തിന്റേതായ ഇതിൽ പ്രത്യേകിച്ച് എന്താ അർഥമൊന്നും ഇല്ലാണ്ട് വരച്ചതാണ് കരിഞ്ഞുണങ്ങിയൊരു മരം പിന്നീട് മുമ്പോട്ട് വന്ന് ആ ചിത്രം പിന്നീട് കാണുമ്പോൾ നമ്മുടെ പ്രകൃതിയായിട്ട് റിലേറ്റെയ്ത് ആ ചിത്രത്തെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് കരിഞ്ഞുണങ്ങിയ മരമെന്ന് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ത പ്രകൃതി വേനലൊക്കെ ആകുന്ന സമയത്ത് പ്രകൃതി വെള്ളം കിട്ടാണ്ട് മരങ്ങളും ചെടികളും ഒക്കേ കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയാണ് എനിക്കാ ചിത്രം ക ചിത്രം പിന്നീട് കണ്ടുകഴിഞ്ഞപ്പോൾ മനസിലാകുന്നത് വരച്ച സമയത്ത് അതിന് പ്രത്യേക അർഥമൊന്നുല്ല ചുമ്മാ വരച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നീടാണതിന്റെ പ്രാധാന്യം മനസിലാക്കുന്നത്